ജോലിസ്ഥലത്ത് ഞാൻ പിന്നെ ഒരു കുക്കായാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ കുക്കായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കുട്ടികൾ പറഞ്ഞു ഇന്ന് ചേച്ചി അഞ്ച് പേരെ ഉണ്ടാവുളളു ഭക്ഷണം കുറച്ച് വച്ചാൾ മതി എന്നു പറഞ്ഞു ഞാൻ കുറച്ചരിയിട്ട് ഭക്ഷണം വച്ച് അപ്പോൾ നോക്കുമ്പോഴോ ഉച്ച ഒരു മണിയാവുമ്പോഴുണ്ട് കുറച്ച് സാറുമ്മാരും പിള്ളേരും കൂടി കയറി വരുന്നു പത്ത് പേർക്കുള്ള ഭക്ഷണം തികയില്ല ചോറ് കഷ്ടി തികയും കറി തികയില്ലായിരുന്നു അതുകൊണ്ട് ഞാനെന്തു ചെയ്തു വച്ച് എന്നാൽ മുളകുപൊടിയൊക്കെ ഇട്ട് കുറച്ച് പിന്നെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊരു തെറ്റെനിക്ക് പറ്റിയിട്ടുണ്ട്